ഇന്ത്യൻ വിനോദ വ്യവസായം എന്ന് പറയുമ്പം ആദ്യകാലം ഇന്നാണ് ഇതിന് ഒരു വ്യവസായത്തിന്റേതായ മുഖച്ഛായ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള വിനോദം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡാൻസുകളും പ്രാദേശികമായ രൂപപ്പെടുത്തലുകളിലൂടെയുള്ള കലകളും ആയിരുന്നു ചെറിയ തോതിലുള്ളതും വൻ തോതിൽ ഉള്ളതുമായ പലതരം ഡാൻസുകൾ അപ്പം അത് ഓരോ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല കാലഘട്ടത്തിലും പല കലകളിലൂടെയാണ് ആ സംസ്കാരം അത് പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ നാടോടി കഥകളുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെയുള്ള ഡാൻസ് രൂപങ്ങൾ ആയിരുന്നു ആദ്യകാലത്തെ എന്നാണ് എന്റെ ഒരു അറിവ് പിന്നീട് അത് മറ്റു കലകളിലേക്ക് കഥാപ്രസംഗം പോലെയുള്ളതും പാവകളി അങ്ങനെ കഥ പറയുന്ന ഒരു സാഹചര്യത്തിലോട്ടു വന്നു അഭിനയിക്കുന്നത് വേറെ ഒരു കഥാരൂപം കലാരൂപം രണ്ടാമത്തേത് അത് പറച്ചിലിലൂടെ ഉള്ള ഒരു കലാരൂപം പിന്നീട് അത് നാടകങ്ങളിലൂടെ ആയി അത് പുരാണ നാടകങ്ങളും അല്ലാതെ നമ്മുടെ സമൂഹത്തിലെ അന്ന് അതാത് കാലങ്ങളിൽ നിലനിന്ന വ്യവസ്ഥിതികളെ പറ്റിയും സംഭവങ്ങളെയും പറ്റിയുമുള്ള നാടകങ്ങൾ പിന്നീട് അത് സിനിമയിലേയ്ക്ക് ആയി സിനിമ വന്നപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിപ്പെട്ടു കൂടുതൽ ആൾക്കാർ അത് ആസ്വദിച്ചു സിനിമ പിന്നെ ഗ്രാജ്വലി വളർന്നു വളർന്നു ഇന്നത്തെ അവസ്ഥയിലെത്തി ഇ പിന്നീട് അതിനോട് എടെ കൊണ്ട് റേഡിയോ ജനത്തെ സ്വാധീനിച്ച ഒരു വലിയ ഒരു മാധ്യമം എന്നു പറയാം അത് അതിനകത്ത് കലാപരമായിട്ടുള്ള സ്വാധിനവും ഉണ്ടായിരുന്നു അല്ലാതെ നമുക്ക് ന്യൂസ് അറിയുക എന്നുള്ള ഒരു വലിയ ധർമ്മവും കൂടെ റേഡിയോയിലൂടെ നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ പത്രങ്ങൾ അതിനെ ഒരു വിനോദം എന്ന് പറയാൻ പറ്റത്തില്ല പത്രങ്ങൾ മെയിൻ ആയിട്ട് നമുക്ക് ഉപകാരപ്പെട്ടത് വാർത്തകൾ അറിയുക എന്നുള്ളതും പിന്നെ ഒരു കമ്മ്യൂണിക്കേഷന് അന്നുള്ളതും ആയിരുന്നു പിന്നീട് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ അത് വീഡിയോ ആയി ടെലിവിഷൻ ആയി ഇപ്പം സോഷ്യൽ മീഡിയ ആയി സോഷ്യല് മീഡിയ തന്നെ എത്രയോ ചാനലുകളല്ല എത്രയോ ടൈപ്പ് അതിനെ അവതരിപ്പിക്കുന്ന രീതികളുണ്ട് അപ്പം അതെല്ലാം ഒരു വിനോദത്തിന് ആയിട്ടാണ് ഇപ്പം കൂടുതൽ ഉപകരിക്കുന്നത് പിന്നെ ഓരോരുത്തരുടെയും അഭിരുചി അനുസരിച്ച് എന്തും സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ആൾക്കാർ അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ഉള്ളതേ ഇത് തെരഞ്ഞെടുത്ത് ആസ്വദിക്കുന്നു ഇപ്പം മ്യൂസിക് കേൾക്കണം താല്പര്യമുള്ളവർ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഓരോ ഓപ്ഷൻ തെരഞ്ഞെടുക്കുന്നു പിന്നെ ഡാന്സ് താല്പര്യമുള്ളവർ അത് തിരഞ്ഞെടുക്കുന്നു സിനിമ താല്പര്യമുള്ളവർ അത് തെരഞ്ഞെടുക്കുന്നു പിന്നെ കലകൾ മറ്റു പല പല കലകൾ ഉണ്ടല്ലോ അതെല്ലാം അവരവർ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് തെരഞ്ഞെടുത്ത് കൈകാര്യം ചെയ്യുന്നു ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്